ഞാൻ എൻ്റെ മംഗളകരമായ സംഭവം തുടങ്ങുന്നതെന്നു വച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റ് ഒരു കണ്ണാടി നോക്കും അപ്പം എൻ്റെ മംഗളകരമായ സംഭവം തുടങ്ങും അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് പോകുന്നത് പിന്നെ എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അന്നത്തെ ദിവസത്തെ നമുക്കിപ്പം എന്തെങ്കിലും കൂലി അങ്ങനെ എന്തെങ്കിലും കൂടുതലൊക്കെ കിട്ടുകയും ചെയ്യും അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അപ്പം കണ്ണാടി നോക്കാണ്ട് പോയിക്കയിഞ്ഞാൽ നമുക്കൊരു പൈസയും കിട്ടാത്തൊരവസ്ഥയാണ് വരുന്നത് അപ്പം അന്നത്തെ ദിവസം ദാരിദ്ര്യമായിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്